ആ എനിക്കിങ്ങനെ കുഞ്ഞ് നാള് മുതൽ ഇങ്ങനെ ക്രാഫ്റ്റ്സിനോടും ഇങ്ങനെ പടം വരക്കുന്നതിനോടൊക്കെ ഭയങ്കരൊരു ഇഷ്ടമായിരുന്നു അപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ മദേഴ്സ് ഡേക്ക് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു ഇതുപോലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കാർഡ് പ്രെസന്റ് ചെയ്യണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയുള്ള കാർഡ് കൊടുക്കണം അപ്പോൾ അവരുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ അന്നേരം അഞ്ചാം ക്ലാസിൽ അഞ്ചിലോ ആറിലോ പഠിക്കുകയായിരുന്നു ആ ടൈമിൽ ഞങ്ങളെല്ലാ ഞങ്ങളെല്ലാ പിള്ളേരും സ്വന്തമായിട്ടുതന്നെ ഒരു കാർഡ് ഒക്കെ ഉണ്ടാക്കി ഞാനും ഉണ്ടാക്കി അതുപോലൊരു കാർഡ് നമ്മുടെ ബോണ്ട് പേപ്പർ ഒക്കെ വെച്ച് കുറേ കളർ ഒക്കെ അടിച്ച് ഓരോ കൊച്ചിൻ്റെയും അമ്മയുടെയും ഒക്കെ പടമൊക്കെ വരച്ച് നല്ല ക്രീയേറ്റീവ് ആയിട്ടാണ് ചെയ്തത് എന്നിട്ട് ഞാനത് മദേഴ്സ് ഡേക്കന്ന് എൻ്റെ അമ്മക്ക് പ്രെസന്റ് ചെയ്തു അപ്പോൾ അത് അമ്മ അത് കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മയുടെ ഹാപ്പിനെസ് ഞങ്ങളുടെ മിസ്സ് പറഞ്ഞത് പോലെതന്നെ അമ്മയുടെ ഹാപ്പിനെസ് എനിക്ക് അമ്മയുടെ ഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി പിന്നെ അല്ലാതെ കുറേ ഡ്രോയിങ്ങ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ ഈ കഴിഞ്ഞ ഇടയ്ക്കുതന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ആ ടൈമിൽ അവളുടെ അ ചെറ് ആ ബോയിയുടെയും കൂടെ അവരുടെ ഇടയിൽ കപ്പിൾ ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വരച്ച് അവർക്ക് കൊടുത്തു സ്റ്റേജിൽ വെച്ചാണ് ഞാൻ കൊടുത്തത് അന്നേരം തന്നെ അവർ ഓപ്പൺ ചെയ്തത് നോക്കി അപ്പം അവരുടെ ഫേസിൽ നിന്നെനിക്ക് ആ ഒരു ഹാപ്പിനെസ് അതൊക്കെ കിട്ടിയപ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി അപ്പം നമുക്ക് നമ്മളെത്രത്തോളം നമുക്കതിനുള്ള വല്ല സ് അതിനുള്ള ബെനഫിറ്റോ അതിന്റെ പൈസ കിട്ടുമെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്കിഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഫേസിൽ കാണുന്നൊരു ഹാപ്പിനെസ് ആണ് നമുക്കൊരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു കിട്ടുക ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നമ്മളൊരു മണിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് അതിൻറ്റേതായ ഹാപ്പിനെസ് നമുക്ക് കിട്ടണം എന്നില്ല പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ കഷ്ടപ്പെട്ടിങ്ങനെ ഈ ഡ്രോയിങ്ങ്സും ക്രാഫ്റ്റും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മനസ്സ് അവർക്കുള്ളിലുണ്ടാവുന്ന ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്